വീട്ടുമുറ്റത്തേക്കോ അല്ലെങ്കില് പൂന്തോട്ടത്തിലേക്ക് ഒക്കെ പക്ഷികളെയും പിന്നെ ചെറിയ ചെറിയ പിന്നെ പൂമ്പാറ്റകളെയൊക്കെ ആകർഷിക്കുന്നതിനു വേണ്ടിയിട്ട് അവർക്കുവേണ്ടിയിട്ടുള്ള ഭക്ഷണവും വെള്ളവും വയ്ക്കുന്നത് എന്താണ് അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സഹായിക്കാറുണ്ട് പിന്നെ പിന്നെ എന്താന്നുവെച്ചിട്ടുണ്ടെങ്കില് പിന്നെ അധികവും കീടനാശിനികളൊന്നും യൂസ് ചെയ്യാതിരിക്കുക ചെടികളിലും പിന്നെ ഒക്കെ എന്താണ് അധികം കീടനാശിനികളൊക്കെ യൂസ് ചെയ്യാതിരിക്കുന്ന ഇരിക്കുമ്പോഴും എന്താണ് പക്ഷികളൊക്കെ കൂടുതലായിട്ട് പൂക്കളിലൊക്കെ എന്താണ് പൂക്കളിലൊക്കെ ആകർഷിത ആകർഷിതരായിട്ട് വരാറുണ്ട് പിന്നേ ഞാന് എന്താണ് ധാന്യവും വെള്ളവും വയ്ക്കാറുള്ളത് വേനൽക്കാലത്ത് വെള്ളം വയ്ക്കാറുണ്ട് കെട്ടോ ചെടികളിലും പൂന്തോട്ടത്തിൻ്റെ സൈഡിലൊക്കെ ചിരട്ടകളില് എന്ത് ചെയ്യാറുണ്ട് വെള്ളം വയ്ക്കാറുണ്ട്